നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും നമ്മളെ ഫോ നമ്മൾ ഫോട്ടോ എടുക്കുക നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫോട്ടോക്ക് പോസ് ചെയ്തു നിൽക്കുകയാണെങ്കിൽ ആ നമ്മുടെ മുമ്പിലൂടെ വണ്ടിയോ ആരെങ്കിലും നമ്മളെ നോക്കി ചിരിക്കേ റ്റ ചെയ്താൽ നമുക്ക് അത് നമുക്കും ചിരി വരും അപ്പോൾ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വയനാട്ടിലേക്ക് വയനാട്ടിലൂടെ ട്രിപ്പ് പോകുകയായിരുന്നു അങ്ങനെ അവിടെയുള്ള ഫോറസ്റ്റിൽ വനത്തിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്നു വിചാരിച്ചു അങ്ങനെ ഞാനും ഹസ്ബൻഡും മാ മോനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു അതിനു ശേഷം എൻ്റെയും മോൻ്റെയും എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടു പേരും ഫോറസ്റ്റിൻ്റെ കുറച്ച് ഉള്ളിലേക്കങ്ങ് കേറി നിന്നിട്ട് ഫോട്ടോ എടുത്ത് റോഡും വണ്ടിയും ഒന്നും കാണാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉള്ളിലേക്ക് കേറി നിന്നിട്ട് ഫോട്ടോ എടുക്കുകയായിരുന്നു അപ്പം അതിൻ്റെ എതിരെ പോയ രണ്ട് മൂന്ന് ബൈക്ക് ഉണ്ടായിരുന്നു ഈ ടൂർ പോകുന്ന ചെക്കന്മാരുണ്ടായിരുന്നു ചെക്കന്മാർ അപ്പം നമ്മളെ നോക്കി ചിരിക്കുകയായിരുന്നു ഞങ്ങളെ അങ്ങ് നോക്കിയപ്പോൾത്തന്നെ ഞങ്ങൾക്ക് ചിരി വന്നു പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് ചിരി വന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല നമ്മളെ തന്നെ നോക്കി ചിരിക്കുക പിന്നെ നമുക്ക് എത്ര ആലോചിച്ചും ഫോട്ടോക്ക് പോസ് ചെയ്തിട്ടും നമുക്ക് ആ കാ ആ ഒരു കാര്യം ആലോചിയ്ക്കുക അപ്പം നമുക്ക് ഫോട്ടോയിലല്ല പോസ് ചെയ്യാൻ പറ്റുന്നത് നമുക്കപ്പോൾ ചിരിയാണ് വരുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്